എനിക്ക് താല്പര്യം പെൻസില് കൊണ്ട് വരയ്ക്കാനാണ് കാരണം പെൻസില് കൊണ്ട് വരച്ച് എന്തെങ്കിലും തെറ്റു പറ്റിയാൽ നമുക്കത് മായ്ച്ച് വൃത്തിക്ക് വേറെ വരയ്ക്കാൻ പറ്റും പക്ഷേ പെയിൻറ്റ് കൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ പെയിൻറ്റിൽ നിന്നും എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ നമുക്കത് പിന്നെ അത് തിരുത്തി എടുക്കല് വലിയ ബുദ്ധിമുട്ടായിരിക്കും പെനിസില് കൊണ്ട് വരയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത് എനിക്കിഷ്ടം പെനിസില് കൊണ്ട് വരയ്ക്കാനാണ് താല്പര്യം ചിത്രരചന വരയ്ക്കുന്ന പെൻസില് കൊണ്ട് വരയ്ക്കാനാണ് എനിക്കിഷ്ടം ഭംഗി കൂടുതലും പെൻസില് കൊണ്ട് വരയ്ക്കുമ്പോഴാണ് ഭംഗി കൂടുതല് വരാറ് പെൻസില് കൊണ്ട് വരച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ പെയിൻറ്റിങ് കൊടുത്താൽ നന്നായിട്ടിരിക്കും ഇതാണെന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഇത് വര ഇപ്പ വരയ്ക്കാനും എളുപ്പം പെനസില് കൊണ്ട് തന്നെ ആയിരിക്കും നമുക്ക് പെയിൻറ്റുപയോഗിച്ച് വരയ്ക്കുന്നതിനും ഭംഗി പെൻസില് കൊണ്ട് വരയ്ക്കുമ്പോഴായിരിക്കും